ഞാൻ ബൈക്കിൽ പോയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചെന്നൈയാണ് അത് ഒരു പരീക്ഷക്ക് വേണ്ടിയിട്ട് ഏട്ടൻ്റെ കൂടെ പോയതാണ് അതും അതും കഴിഞ്ഞ് രണ്ടു ദിവസം കൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഗോവ ആണ് ഗോവ പോകാൻ ഭയങ്കര ആഗ്രഹം ആണ് കാരണം ബൈക്ക് യാത്ര എന്നുള്ളത് കൊണ്ട് തന്നെ ബൈക്ക് യാത്രയിൽ പോകാൻ നല്ല രസമാണ് കാഴ്ചകൾ ഒക്കെ കണ്ട് നമുക്ക് നമ്മളുടെതായ രീതിയിൽ നമുക്ക് പോകാം അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കൂടെ ആകുമ്പം അത് പ്രത്യേക ഒരു സന്തോഷമാണ് അതായത് നമ്മൾ വീട്ടുകാരുടെ കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ കൂടെ ആയിക്കോട്ടെ അത് നമുക്ക് എന്താ പറയാ നമുക്ക് നമ്മുടെ രീതിയിട് ചേർന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ഭയങ്കര സന്തോഷം ആയിരിക്കും അവരുടെ കൂടെ പോകാൻ പക്ഷേ ഈ ബൈക്ക് യാത്രാന്ന് പറയുമ്പം എന്താ പറയാ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓടിക്കുന്ന ആൾക്ക് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാം പിന്നെ പെട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും സന്തോഷം നമുക്ക് അത്രയും എന്താ പറയാ ആഘോഷിച്ചു പോകാൻ പറ്റുന്ന ഒരു ഇതു തന്നെയാണ് ബൈക്ക് യാത്ര എന്ന് പറയുന്നത് അത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ ആകുമ്പം കുറച്ചുകൂടി നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരും അപ്പം പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കും കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അത്രയ്ക്കും രസമായിരിക്കും അത്